എൻ്റെ ഫസ്റ്റ് പ്രോഡക്റ്റ് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇലക്ട്രോണിക്സ് ആണ് ഇലക്ട്രോണിക്സ് ഉപകരണങ്ങൾ ഒരുപാടുണ്ട് അത് ഫ്രിഡ്ജ് ടി വി അതൊക്കെ ഇലക്ട്രോണിക്സിൻ്റെ ഉപകരങ്ങളാണ് നമുക്കതിനെ ഇലക്ട്രോണിക്സിൻ്റെ ഉപകരണങ്ങൾ കൊണ്ട് നമുക്കൊരുപാട് ഗുണങ്ങളുണ്ട് ഫ്രിഡ്ജാണെങ്കിലും നമുക്ക് തണുപ്പിക്കാനും തണുത്ത ചൂട് സമയത്ത് തണുത്ത സാധനങ്ങളൊക്കെ കഴിക്കാൻ ഉപകാരമുള്ള സാധനമാണ് വാഷിംഗ് മെഷീനാണെങ്കിൽ നമുക്ക് തുണിയലക്കാൻ നമുക്ക് ബുദ്ധിമുട്ടുള്ള സാഹചര്യത്തിൽ നമുക്ക് തുണിയൊക്കെ വാഷ് ചെയ്യാൻ വേണ്ടീട്ട് ഉപയോഗിക്കാൻ പറ്റും അപ്പോൾ ഇലക്ട്രോണിക്സിൻ്റെ സാധനങ്ങൾ നമുക്ക് ഒരുപാട് ഉപയോഗങ്ങളാണ് നമുക്ക് തരുന്നത് പോസിറ്റീവ് ആയിട്ട് ഒരുപാട് ഗുണങ്ങൾ നമുക്ക് തരുന്നുണ്ട് ഇപ്പോൾ ഫാൻ ആണെങ്കിൽ ഭയങ്കര ചൂടൊക്കെയാണ് നമുക്ക് ഫാനിട്ടൂടെ അപ്പോൾ അത് ഒരു ഉപകാരം തന്നെയാണ് അതിൻറ്റെയൊരു പോസിറ്റീവ് ഗുണം തന്നെയാണ് പിന്നെ ടി വി ടി വി ആണേൽ നമുക്ക് ബോർ അടിക്കുന്ന സമയത്ത് നമുക്ക് ടി വി ഒക്കെ കാണാൻ വേണ്ടി പറ്റുന്നുണ്ട് നമുക്കൊരുപാട് ബോറടി മാറ്റാനുള്ള സഹായിക്കുന്ന ഒരു ഇലക്ട്രോണിക് ഉപകരണമാണ് ടി വിന്ന് പറയുന്നത് ഫ്രിഡ്ജെന്ന് പറഞ്ഞാൽ നമുക്ക് കേടുകൂടാതെ ഭക്ഷണങ്ങളൊക്കെ പദാർത്ഥംങ്ങളൊക്കെ ഒരു ദിവസത്തേക്ക് വെക്കാൻ പറ്റുന്ന സഹായിക്കുന്നെയാണ് കുറച്ച് നാളത്തേക്ക് തക്കാളി ഉള്ളിയൊക്കെ അല്ല ഉള്ളീം പച്ചമുളകൊക്കെ ആണെങ്കിൽ തക്കാളീം പച്ചമുളകൊക്കെയാണെങ്കിൽ നമുക്ക് വെക്കാൻ പറ്റുന്ന ഒരു ഒരു ഉപകരണമാണ് ഫ്രിഡ്ജ് ഇലക്ട്രോണിക് ഉപകരണമാണ് ഫ്രിഡ്ജ് പിന്നെയി അങ്ങനെ ഒരുപാടു നമുക്ക് ഇലക്ട്രോണിക്സ് ഉപകരണങ്ങൾ കൊണ്ട് നമുക്ക് പോസിറ്റിവായിട്ട് ഒരു പ്രൊഡക്ടാണ് ഇലക്ട്രോണിക്സ് ഉപകരങ്ങളെന്ന് പറയുന്നത്